കോഴിയിറച്ചി ഉൽപന്നങ്ങളിൽ പ്രോസസ്സ് ചെയ്യുന്നതിനുള്ള ചില സാധാരണ രീതികളെന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ സാധാരണയായിട്ട് അട വച്ച് മുട്ട വിരിയിച്ച് കോഴിക്കുഞ്ഞുങ്ങളെ പുറത്ത് കൊണ്ട് വരുകയും അതുപോലെ തന്നെ അതിങ്ങളെ വളർത്തി വലുതാവുമ്പോഴേക്കും രണ്ട് തരത്തിലുള്ള കോഴികളുണ്ട് അതായത് ബ്രോയിലർ കോഴിയെന്ന് പറയുന്ന ഇറച്ചി കോഴികളും അതുപോലെ മുട്ട കോഴികളും ബ്രോയിലറച്ചി അതായത് ഇറച്ചി കോഴികൾ അത് പലപ്പോഴും അഞ്ച് മുതൽ അൻപതാഴ്ച്ച വരെ ആണ് അതിൻ്റെ ഒരു സമയം അത് പ്രായാവുമ്പോഴ്ത്തേക്കും അതിൻ്റെ മാംസമെടുക്കാൻ പറ്റുന്നതാണ് ഈ ആഴ്ച്ചയിൽ തന്നെ അതിന് ശരീരത്തിന് വലിപ്പമൊക്കെ ഒരുമാതിരി ആകും സാധാരണ ഇറച്ചി കോഴികളെ ഒന്നും കൂട്ടിലല്ല ഒരു ഫാം പോലുള്ള ആ വളർത്തുന്നത് പക്ഷേ ഞങ്ങടെയൊക്കെ വീട് ഞങ്ങടെയൊക്കെ ഹൗസെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കിപ്പം നാൽപ്പത് കോഴികളാണുള്ളത് അപ്പം ആ കോഴികൾ എല്ലാം ഉണ്ട് ഇറച്ചികോഴികളുമുണ്ട് മുട്ട കോഴികളുമുണ്ട് അപ്പം സാധാരണ ഞങ്ങൾ മുട്ടക്കാണ് സാധാരണ ഉപയോഗിക്കുന്നത് എങ്കിൽ ഇടക്ക് ഞങ്ങൾ മാംസത്തിന് വേണ്ടി ഉപയോഗിക്കാറുണ്ട് പക്ഷേ അതുങ്ങൾക്ക് നല്ല ഭക്ഷണം കൊടുക്കണം അതുപോലെ പുറത്തിറക്കി വിട്ട് നല്ല ചെടികളെക്കെ കുത്തിത്തിന്നും പുല്ലുകളൊക്കെ കുത്തിതിന്നുവൊക്കെയാണ് അതുങ്ങൾ വളരുന്നത് അതുങ്ങളുടെ വളർച്ച കാണുന്നതും ഒക്കെ ഒത്തിരി സന്തോഷം തോന്നാറുണ്ട് അതുപോലെ തന്നെ അതുങ്ങൾക്ക് വേണ്ട തീറ്റ വെള്ളം അത്പോലെ മെഡിസിൻസൊക്കെ കൊടുക്കണം ഇടക്കിടക്ക് പിന്നെ ഞങ്ങളുടെ ഇവിടേന്ന് പറയുമ്പളും കുറച്ച് തടി കഷ്ണങ്ങളും അത്പോലെ ചില ചില മറ്റ് ഉമ്മിപോലുള്ള സാധനങ്ങളുവൊക്കെയാണ് ഞങ്ങളവിടെ വിതറീട്ടുണ്ട് അപ്പം അത് കൂടുതലും നല്ലതാണ് അതുപോലെ മറ്റുള്ള ഞങ്ങൾ കൂടുകളിൽ ഇങ്ങനെ സൂക്ഷിക്കുന്നതിൻ്റെ മെയിൻ കാരണം പല ശല്യങ്ങളുണ്ടാകാറുണ്ട് അതുപോലെ എന്നതാണ് പട്ടികൾ വന്ന് അതുങ്ങളെ ശല്യം ചെയ്യാറുണ്ട് അതുപോലെ കീരി പാമ്പ് എന്നിവയിലൊക്കെ സംരക്ഷിക്കാൻ വേണ്ടീട്ടാണ് ഞങ്ങൾ കൂടുകൾ കൂടുകളിൽ അതിങ്ങളെ സൂക്ഷിച്ചിരിക്കുന്നത് അതല്ല എങ്കിൽ വരാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ അതിങ്ങളെ മറ്റുള്ള ജീവികൾ വന്ന് കടിച്ചോണ്ട് പോവാനൊക്കെ സാധ്യത ഉള്ളത്കൊണ്ട് അതിങ്ങളെ കൂടുതലും കൂടുകളിലാണ് ഞങ്ങൾ സൂക്ഷിച്ചിരിക്കുക ഇടക്ക് ഞങ്ങളുടെ സാന്നിധ്യം ഉള്ളപ്പോൾ മാത്രമാണ് അതുങ്ങളെ പുറത്തിറക്കി വിടുക ഇറച്ചി കോഴികൾ എപ്പോഴും ഇങ്ങനെ താരതമ്യേന ചെറുപ്പമായിരിക്കുന്ന സമയങ്ങളിൽ തന്നെയാണ് ഇതിനെ നമ്മൾ മാംസത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ ആവശ്യമായിട്ടുള്ള വിറ്റാമിനുകളും ധാതുക്കളോക്കെ ഇതിന് കൊടുക്കാറുണ്ട് പിന്നെ അതുപോലെ ഇത് ശരിക്കും പറഞ്ഞാൽ നല്ല പരിചരണം വേണ്ട ഒരു കാര്യമാണ് ഇറച്ചി കോഴികൾക്ക് അപ്പം ഇതിൻ്റെ നിലവാരമെന്ന് പറഞ്ഞ്കഴിഞ്ഞാൽ ഗുണനിലവാരത്തെകുറിച്ച് പറയുവാണെങ്കിൽ നല്ല നിലവാരമുണ്ട് പക്ഷേ അതിനെ അതിൻ്റെതായ രീതിയിൽ തന്നെ മുൻപോട്ട് നിയന്ത്രിച്ച് കൊണ്ടുപോവുകയാണെങ്കിൽ അതിനെ നല്ല രീതിയിൽ തന്നെ നല്ല നിലവാരത്തിൽ തന്നെ കൊണ്ടുപോകാനായിട്ട് സാധിക്കും ഞങ്ങളെ സംബന്ധിച്ചോളം ഇതൊരു ചെറിയൊരു ഭവനമാണ് അതുകൊണ്ട് ഞങ്ങൾക്കൊത്തിരിയേറെ ബിസിനെസ്സായിട്ടുള്ള രീതിയിലല്ല ഞങ്ങളിതിനെ കാണുന്നത് നമ്മുടെ അനുദിന ജീവിതത്തിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നത് കൊണ്ട് ഞങ്ങൾക്കൊരു പത്ത് നാൽപ്പതെണ്ണമേ ഉള്ളു അത് പക്ഷേ ഞങ്ങൾ നല്ല രീതിയിൽ തന്നെ അതിനെ കൊണ്ടുപോകുന്നുണ്ട് അതിന് വേണ്ടതെല്ലാം കൊടുക്കാറുണ്ട് പിന്നെ ഫുഡ് ഐറ്റംസാണേലും അതുപോലെ വിറ്റാമിൻസാണേലും മെഡിസിൻസാണേലൊക്കെ കൊടുത്ത് തന്നെയാണ് അതുങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പം അതിങ്ങൾ നമുക്ക് വേണ്ട രീതീൽ ഫ് നല്ല മുട്ടകളൊക്കെ നൽകാറുണ്ട് അതുപോലെ മാംസത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കാറുമുണ്ട്